ആ എപ്പോൾ തുടങ്ങി

ആ എങ്ങനെ ഇടവിട്ട് ഇടവിട്ടാണോ അതോ എപ്പോഴും പനിയാണോ ചുമയോ ജലദോഷമോ ഏന്തെങ്കിലുമുണ്ടോ തൊണ്ട വേദന തലവേദനയോ മരുന്നെന്തെങ്കിലും കഴിച്ചിരുന്നോ ആണോ എന്നിട്ടും കുറവില്ലെ

പിന്നേ അവിടുത്തെ ആശുപത്രിയിൽ എവിടെയെങ്കിലും കാണിച്ചിരുന്നോ ഇല്ല അല്ലെ അപ്പോൾ ആവി പിടിക്കണം കേട്ടോ പാരസെറ്റമോള് കഴിച്ചോ അതു കഴിഞ്ഞിട്ട് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ല അല്ലെ അപ്പം എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ പാരസെറ്റാമോള് കഴിച്ച് നോക്ക് ഇന്ന് എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് വന്ന് കാണിക്കണം കേട്ടൊ രണ്ട് മൂന്ന് ടെസ്റ്റിന് എഴുതിത്തരാം വീട്ടിൽ ആർക്കെങ്കിലും പനി ഉണ്ടോ ഇല്ല നനയുകയോ മറ്റൊ ചെയ്തിരുന്നോ തണുത്ത എന്തെങ്കിലും കഴിക്കുകയോ

മഴ നനഞ്ഞിട്ടില്ലല്ലോ വേറെ എന്തെങ്കിലുമുണ്ടോ അസുഖം പനി അല്ലാണ്ട് അപ്പോൾ ആ മരുന്ന് കഴിക്കുക ആദ്യം പാരസെറ്റാമോള് എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ ഒന്ന് എന്നെ വന്ന് കാണിക്കണം അതു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ടെസ്റ്റുണ്ടെങ്കിൽ എഴുതിത്തരാം നോക്കാം നമുക്ക് എന്താണെന്ന് ജലദോഷവും തൊണ്ട വേദനയൊന്നുമില്ലല്ലോ അല്ലെ ആ പേടിക്കാനൊന്നുമില്ല ആ അപ്പോൾപ്പിന്നെ ഇത് കഴിച്ചിട്ട് കുറവില്ലേ വന്ന് കാണിക്ക് കേട്ടൊ ആയിക്കോട്ടെ ശരി ആയിക്കോട്ടെ